ഇപ്പം ഷെയർ മാർക്കെറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഏറ്റക്കുറച്ചിൽ വിപണിയിൽ ഒരുപാട് ഏറ്റവും തഴ്ച്ചയൊക്കെ വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പം നമ്മളൊരു ഷെയർ മേടിച്ച് കഴിയുമ്പോൾ ഒരു ഒരു ഇപ്പം റിലയൻസിൻ്റെ ഒരു ഷെയർ മേടിച്ചു ഇപ്പം ഡിജിറ്റൽ ആപ്പുകളിലൂടെ ആണല്ലോ നമ്മൾ മേടിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഡിജിറ്റൽ ആപ്പ്കളിലൂടെ ആപ്പ്കളിലൂടെയുള്ള വ്യാപാരത്തിൽ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഷെയറുകൾ വിൽക്കാനും വാങ്ങാനും ഡിജിറ്റൽ ആപ്പ് വഴി ഒരുപാട് നല്ല സഹായകമായ രീതിയിലാണ് വന്നിട്ടുള്ളത് അതിൽ വലിയ അപകട അപകട സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപകട സാധ്യത ഇല്ലാതെയില്ല നമ്മുടെ അനാവശ്യമായിട്ട് രേഖകളൊക്കെ കൊടുക്കുന്നതിലൂടെ ചിലപ്പം നമുക്ക് അതിലൂടെ എന്തെങ്കിലും അപകട സാധ്യത വരാൻ സാധ്യത ഉണ്ട് എന്നാലും നമ്മൾ ശ്രദ്ധാപൂർവ്വം ആണിത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് ഷെയർ മേടിക്കുന്നതിനെക്കുറിച്ച് വളരെ ഏറ്റക്കുറവിൽ നമുക്ക് ഷെയർ മേടിക്കാനുള്ള സാഹചര്യം വരുന്നു